സാങ്കേതിക പുരോഗതിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ പ്രദേശം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങള് നെറ്റിൻ്റെ പ്രശ്നം തന്നെയാണ് അതായത് റേഞ്ചിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അത് ചെല സമയങ്ങളില് നെറ്റ് കിട്ടാന് വളരെ വിഷമമാണ് അപ്പോള് തന്നെയല്ല നാട്ടിലുള്ള ഏറെ കുറേ ആൾക്കാരും സാധാരണപ്പെട്ട ജനങ്ങളാണ് അവർക്ക് സാങ്കേതികവിദ്യയും കാര്യങ്ങളുമൊന്നും അറിയില്ല അത് ഒരു ആന്തരികമായ ഘടകം തന്നെയാണ് ബാഹ്യഘടകമെന്നു പറയുമ്പോള് നെറ്റിൻ്റെ റേഞ്ച് കിട്ടുന്നില്ല അതിൻ്റെ പരിധി കൂടുതലാണ് ഇതൊക്കെയാണ് വരുന്നത് മറ്റൊന്ന് അറിവില്ലായ്മ അത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധം കുറവാണ് അല്ലെങ്കില് തന്നെ ഇതിനുള്ളൊരു പരിശീലനം കൊടുക്കുകയോ ഒക്കെയാണെങ്കില് ആൾക്കാര് കൂടുതല് അതിനുവേണ്ടതായ കാര്യങ്ങളിലേക്ക് പോകും ഇത് കൂടുതലും നിരക്ഷരരായിട്ടുള്ള ആൾക്കാര് ഉള്ളിടത്ത് ഇങ്ങനെ ഈ സാങ്കേതി പുരോഗതി എത്ര വന്നെന്ന് പറഞ്ഞാലും അവർക്കതിൻ്റെയൊരു ഇത് കിട്ടുന്നില്ല അതിൻ്റെയൊരു ഗുണം കിട്ടുന്നില്ല പിന്നെ അവര് ആശ്രയിക്കേണ്ടിവരുന്നത് അക്ഷയ സെൻറ്ററുകളും മറ്റുമാണ് ഇങ്ങനെയുള്ള അക്ഷയ സെന്ററുകളിലും അവർക്ക് പരിമിതികളുണ്ട് സമയവും തന്നെയല്ല അവർക്ക് ജോലിക്ക് പോകേണ്ടതാ കൂലിപ്പണി ചെയ്യുന്നവരാകുമ്പോള് അവർക്ക് ആ ഒരു സമയബന്ധിതമായിട്ട് കാര്യങ്ങള് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അറിയാവുന്ന ആൾക്കാര് അവർക്കത് മാനുഷിക പരിഗണനയോടെ ചെയ്തുകൊടുക്കുമ്പോൾ മാത്രമാണത് ശരിയായ രീതിയില് ചെയ്യാന് പറ്റുന്നത് അല്ലാത്തപക്ഷം ഇങ്ങനെ സാങ്കേതിക പുരോഗതി ഉണ്ടെന്നു പറഞ്ഞാലും അത് സാധാരണക്കാര് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതിനൊക്കെ ഒരു പരിഹാരം കണ്ടുകഴിഞ്ഞാല് സാങ്കേതിക പുരോഗതി മനുഷ്യൻ്റെ പുരോഗതിക്ക് ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും അല്ലാതെ എത്രയൊക്കെ സാങ്കേതിക പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമുക്ക് ഗുണകരമായി തീരുമെന്നെനിക്ക് സംശയമുണ്ട് ഒന്നാമത് സാധാരണ പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ അന്നന്നത്തേക്കുള്ള ആഹാരം തേടുന്നതിനിടയ്ക്ക് ഇത്തരം സാങ്കേതിക പുരോഗതി എത്രത്തോളം പ്രാപ്യമാണ് എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് അവർക്കത് എത്രത്തോളം അതിനെ അഫോടെയ്യാൻ പറ്റും അതിനെ ഉൾക്കൊള്ളാനാവും എന്നുള്ളതാണ് അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമേയല്ല സാങ്കേതിക പുരോഗതി അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്കാ സാങ്കേതികവിദ്യ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് എനിക്ക് പറയാനുള്ളത്